സാങ്കേതിക വിദ്യയുടെ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും അതേപോലെ ഹോട്ടൽ ടാക്സി ഇങ്ങനെ എല്ലാം ബുക്ക് ചെയ്യാനും അതേപോലെ ട്രെയിനാണെങ്കിൽ ഇപ്പോൾ ഐ ആർ ടി സി ആപ്പ് വഴി നമുക്കൊക്കെ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ ഹെല്പ്ഫുള്ള് ആണ് നമുക്ക് അല്ലെങ്കിൽ സമയ ലാഭവും ലാഭമാണ് നമുക്കത് അതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്നുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി ക്യൂ നിന്ന് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇപ്പോൾ ട്രെയിനിന് പോകുകയാണെങ്കിൽ പത്ത് മണിക്ക് ട്രെയിനിന് പോവുകയാണെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ അല്ലെങ്കിൽ എട്ടു മണിയാകുമ്പോൾ അവിടെ പോകണം എന്നിട്ട് ക്യൂ നിൽക്കണം എന്നിട്ട് വരി നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം തപ്പി കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോയി നിന്ന് ട്രെയിൻ വന്ന് സീറ്റ് കണ്ടുപിടിച്ച് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊക്കെ വളരെ എളുപ്പാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യാനാണെങ്കിലും അതേപോലെ കെ എസ് ആർ ടി സിയിലുള്ള ബസ്സുകളൊക്കെ ബുക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ സീറ്റ് നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ആ സീറ്റിൽ കയറി ഇരുന്നോളു ഇരിക്കുക മാത്രമേ വേണ്ടുളളൂ നമുക്ക് അവിടെ ക്യാഷ് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സീറ്റിൽ കയറുക ടിക്കറ്റ് എന്നാൽ സീറ്റിൽ കയറി ഇരിക്കുകയേ വേണ്ടുള്ളൂ അതിപ്പോൾ ട്രെയിനാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറഞ്ഞെന്നാൽ നമുക്ക് നേരെ പോയിട്ട് ട്രെയിനിൽ കയറി ഇരിക്കണ്ട ആവശ്യം ഉള്ളൂ നമുക്ക് ഏത് ടിക്കറ്റ് ആണോ നമുക്ക് റിസർവ് ആയിട്ടുള്ളത് ആ സീറ്റിൽ കയറുക നമുക്ക് ഏതാണ് ഫ്ലാറ്റ്ഫോം എല്ലാം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സമയലാഭമാണ് എളുപ്പം ആക്കുന്നുണ്ട് അതേപോലെ സാമ്പത്തികം ആണെങ്കിലും നമുക്ക് അവിടെ പോകേണ്ട ചിലവ് അതേപോലെ അതിൻ്റെ ചിലവ് ഒന്നും വരുന്നില്ല നമുക്ക് ഒക്കെ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എല്ലാം നമുക്ക് വളരെ എളുപ്പമാക്കി തരുന്നുണ്ട്